കേരളത്തിൽ വിനോദ സഞ്ചാരത്തിന് പ്രശസ്തമായ പല സ്ഥലങ്ങളും ഉണ്ട് അതിൽ മലമ്പുഴ പ്രശസ്തമായ സ്ഥലമാണ് കോഴിക്കോട് ഫ്ലോട്ടിങ്ങ് പാർക്ക് നല്ല ഒരു ഇതാണ് കൊടുങ്ങല്ലൂരിൽ മ്യൂസിയം വളരെ നല്ല ഇതാണ് പിന്നെ വീഗാലാൻഡ് വാട്ടർ മെട്രോ പിന്നേ കന്യാകുമാരി വിവേകാനന്ദപാറ ഇതെല്ലാം നമുക്ക് വളരെ അധികം വിനോദ സഞ്ചാരത്തിന് പേര് കേട്ട സ്ഥലങ്ങളും നമുക്ക് വളരെ അധികം ആനന്ദകരമായ അനുഭവങ്ങൾ തരുന്നതുമാണ് തൃശൂരിലെ മൃഗശാലകളിൽ വളരെ അധികം മൃഗങ്ങളും ആന സിംഹം കണ്ടാമൃഗം മുതലായവ എല്ലാം ഉള്ളതാണ് ജനങ്ങൾക്ക് പ്രത്യേകമായി നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ആനന്ദം കിട്ടുന്നതാണ് കണ്ണൂരിൽ സ്നേക്ക് പാർക്ക് അതിൽ വിവിധ തരത്തിലുള്ള സ്നേക്ക് പാർക്കിൽ പാമ്പുകളുണ്ട് രാജവെമ്പാല മുതൽ ചെറിയ അണലി പാമ്പ് വരെ അതിൽ കാണാൻ കഴിയും അതിൻ്റെ പ്രത്യേക രൂപങ്ങളും ഭാവങ്ങളും അതിൻ്റെ കിടപ്പ് വളർച്ച എല്ലാം സ്നേക്ക് പാർക്കിൽ കാണാൻ കഴിയുന്നതാണ് സിൽവർ സ്ട്രോമും ഇതേ മാതിരിക്ക് തന്നെ വളരെ അധികം ആകർഷിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികളെയും വൃദ്ധന്മാരെയുമൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഇതാണ് സിൽവർ സ്റ്റോം